നമ്മൾ ഒരു ബൈക്ക് യാത്രയൊക്കെ പോകുവാണെങ്കിൽ കൂടുതലായിട്ടും എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു ഹിമാലയൻ എന്ന് പറയുന്ന ബൈക്ക് ആയിരുന്നു അപ്പം നമ്മളതിനകത്ത് സാഡിസ്റ്റ് സാഡിൽ സ്റ്റേ പിന്നെ ജെറി ക്യാൻ അങ്ങനെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റിയിരുന്നു ടോപ് ബോക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നീണ്ട ഒരു യാത്രയൊക്കെ പോകണമെങ്കിൽ ഞാൻ കൂടുതലായിട്ടും സെറ്റ് ചെയ്യുക നമുക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ആദ്യം സെറ്റ് ചെയ്യുക പിന്നെ നമുക്ക് റൈഡിങ് പാർട്സ് അതായത് ജാക്കറ്റ് ഷൂസ് പാഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ മേടിച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ ഗ്ലൗവും കാര്യങ്ങളും എല്ലാം നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഹെൽമറ്റുകൾ ഇപ്പോൾ രണ്ടുപേർ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് രണ്ടെണ്ണം അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ പെട്രോളും കാര്യങ്ങളും ഒക്കെ അടിക്കാനുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഫണ്ട് നമ്മുടെ ഫുഡിൻ്റെ ഫണ്ട് എല്ലാ എക്സ്പെൻസും നോക്കിയിട്ടാണ് ഏകദേശം ഒരു ഫണ്ട് കൂടുതലായിട്ടും കയ്യില് വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലോങ്ങ് റെയ്ഡ് പോവുകയാണെങ്കിൽ കൂടുതലായിട്ടും നോക്കുന്നത് പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നോക്കും ഇടയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള റൂട്ടാണോ എന്ന് നോക്കിയിട്ട് ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും യാത്ര പോകാറ്